ആ ജന്മദിനത്തിനായാലും വിവാഹത്തിനായാലും നമ്മളിപ്പോൾ സാധാരണ വീട്ടുകാരുമായിട്ട് ആഘോഷിക്കുക വീട്ടുകാരും നാട്ടുകാരും നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ നാട്ടുകാര് നമ്മുടെ അയൽവാസികള് ബന്ധുക്കള് ബന്ധുമിത്രാതികള് അങ്ങനുള്ളവരെയൊക്കെ കൂട്ടി നമ്മള് നമ്മടേതായ രീതിയിലൊരു ഫംഗ്ഷൻ പോലെ വെച്ചിട്ടാണ് സാധാരണ ഇത് ചെയ്യാറ് അപ്പൊൾ അതിലൊര് എന്താ പറയുക നമുക്ക് ആ ഒര് സന്തോഷം നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നല്ലരീതിയിലൊരു സന്തോഷം കൊടുക്കാന്നാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മടേതായൊരു പ്രോഗ്രാം അതായത് നമ്മടെ വീട്ടിൽ നടക്കുന്നൊരു ചടങ്ങായതുകൊണ്ട് പുറമേയുള്ളവരെയും വിളിച്ച് അവരെയും കൂടെ ഒന്ന് ഇതില് പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് അവർക്കൊരു സന്തോഷായിക്കോട്ടെ എന്ന് കരുതി അതായത് അവരുടെ ഒര് സ അവരുടെ ഒരു സാമീപ്യത്തിലാണ് നമ്മളീ പ്രോഗ്രാമ് വെക്കുന്നത് അപ്പ അവരടെതായ കൊറേ നേട്ടങ്ങള് നമ്മക്ക് ഇതുംകൊണ്ട് ലഭിക്കും അവർടേതായ കുറെ കാഴ്ചപ്പാടുകള് ഇതിനകത്ത് അവർക്ക് നമ്മള് കാണാനും നമ്മളോട് നമുക്ക് ഇത്ര ഇതാണ് നമ്മടെ വിവാഹം നമ്മുടെ ജന്മദിനം നമുക്ക് ജന്മദിനം ആണെങ്കിൽ നമ്മൾക്കെത്ര വയസായിന്നോ അങ്ങനുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാനും പിന്നെ വിവാഹാണെങ്കിൽ നമ്മടെ ഭാ ഭാവി എന്താ പറയുക ഇപ്പൊൾ വധുവാണെങ്കിലും വരനാണെങ്കിലും അവരെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് അവർക്കിതൊരു വലിയ ഉപ ഇതാണ് അനുഭവമാണ് പിന്നെ എന്താ പറയുക പിന്നെ ആഘോഷിക്കുന്ന കാരണം ഇവർക്ക് നല്ലൊരു അനുഭവം കാരണം നമുക്കൊരു എന്താ പറയുക സന്തോഷമാണ് അതാണിതിനകത് മെയിൻ എന്താ പറയുക ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നത്